പത്ത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തിയൊന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി അഞ്ച് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്